കലയുടേയും സംസകാരത്തിൻ്റേയും വികസനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൂടുതലായിട്ടും കേരളത്തിലാണ് ഇങ്ങനെ കലകളുടെയും സംസ്കാരത്തിൻ്റെയൊക്കെ കുറെ ഇതായിട്ട് കാണപ്പെടുന്നത് അതില് പല രീതിയിലുമുള്ള ധനസഹായങ്ങളും ചെയ്യലുണ്ട് ഈ കൈത്തറി വസ്ത്രങ്ങൾ ധരിക്കുന്നതും കൈത്തറി വസ്ത്രങ്ങൾക്കുള്ള പ്രത്യേക ഫണ്ട് രൂപീകരണം അങ്ങനത്തെ കാര്യങ്ങള് പിന്നെ കരകൗശല വസ്തുക്കൾ ഇതൊക്കെ പഴയകാലത്തുള്ള ഓരോ കര കൗശല വസ്തു വസ്തുക്കളും ഉൽപ്പന്നങ്ങള് അത് ശാസ്ത്ര ശാസ്ത്രപരമായിട്ടുള്ളത് കാഴ്ചപ്പാടിലേക്ക് വയ്ക്കുകയും ഇപ്പോഴും അത് മുന്നോട്ട് പഴയ കാലത്തിലുള്ള പഴയ കാലത്തിൽ യൂസ് ചെയ്ത് വന്ന കാര്യങ്ങളൊക്കെ ഇപ്പോഴും അതേപടി കൊണ്ട് പോകുന്നതൊക്കെയായിട്ടുള്ളതൊക്കെ കൊണ്ടു വരുന്നുണ്ട് അതിൻ്റെ സർക്കാര് തന്നെ കുറേ കാര്യങ്ങള് ചെയ്യുന്നുണ്ട് മീൻസ് ജീവ ജീവകാരുണ്യപരമായിട്ടുള്ള കുറെ കാര്യങ്ങൾ അങ്ങനത്തെയൊക്കെ ഇതിൽ വരുന്നതു തന്നെയാണ് മീൻസ് കോർപ്പറേഷനിലൊക്കെ കോർപ്പറേഷനിലെ ഇതില് ഹിൻ്റ് കൊടുത്തപോലെ അങ്ങനത്തെ കാര്യങ്ങള് മെയിനായിട്ട് വരുന്നത് ഈ കൈത്തറി വസ്ത്രങ്ങൾ അതൊക്കെ പണ്ട് കാലത്ത് ഉപയോഗിക്കുന്നതാണ് അത് ഇപ്പോൾ ഉപയോഗിച്ച് അതില് വിലയും വ്യത്യസമായി